നമ്മൾ ഇപ്പം ഏത് മൃഗത്തിനെ വാങ്ങിയാലും കുറേ നിയന്ത്രണങ്ങൾ ഉണ്ട് ഇപ്പം പട്ടിനെ വാങ്ങി കഴിഞ്ഞാലും നമുക്ക് അതിനുള്ള പേ വിഷ ബാധയ്ക്കുള്ള ഇതൊക്ക കുത്തിവെയ്പ്പ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതിപ്പം കുറെ ഏതൊക്കെ ആയാലും ആ അതിൻ്റേതായ ഇത് രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ട് ഇപ്പം പശു പശുവിന് ഇപ്പം കുളമ്പ് രോഗം അതിനുള്ള കുത്തിവെപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം ഇപ്പം ഇൻഷുർ എടുത്തു കഴിഞ്ഞാൽ പശുവിന് ഇൻഷുർ എടുക്കുക അങ്ങനെയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാലും അതിനുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടും ബെനിഫിറ്റ് മീൻസ് നമ്മൾ എത്ര പൈസക്കാണ് ഇൻഷൂറ് ചെയ്തത് ആര് പൈസ നമ്മൾക്ക് കിട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട് പിന്നെ എപ്പോഴും ഏത് മൃഗമായാലും പട്ടി ആയാലും അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട് പ്രശ്നങ്ങൾ അതിനെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ അറിയാൻ ഏറ്റവും നല്ലത് യൂട്യൂബ് ചാനലിൽ കുറേ യൂട്യൂബ് ചാനലുകൾ ഉണ്ട് യൂട്യൂബ് ചാനലിൽ കയറി നോക്കി കഴിഞ്ഞാൽ അറിയാം എന്തൊക്കെ ചെയ്താലാണ് അല്ല എന്ത് ഒരു ഇപ്പം പട്ടിനെ വാങ്ങി കഴിഞ്ഞാൽ എന്തൊക്കെ വേണം എന്തൊക്കെ എന്നാൽ ചെയ്താലാണ് ഇതാവുക എന്താവും കുറേ കുറേ കാര്യങ്ങൾ നമുക് അതിനകത്ത് നിന്ന് യൂട്യൂബ് ചാനലിൽ നിന്ന് നോക്കാൻ പറ്റും നിയമ വശങ്ങൾ കാര്യങ്ങളൊക്കെ യൂട്യൂബ് ചാനലിൽ അവർ പറഞ്ഞു തരും